ഹലോ കോഴിക്കോട് റെസ്റ്റോറൻ്റ അല്ലെ ഞാൻ എപ്പോഴും വിളിക്കുന്നതാണ് നമ്മള് കുറച്ച് ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയായിരുന്നു അതെ അതെ അപ്പോൾ നമുക്ക് പിന്നെ നാളത്തേകാണെൽ നാളെ കുറച്ച് കസിൻസ് റിലേറ്റീവ് കുറച്ച് പേര് വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പം അവർക്ക് അതായത് ഉച്ചയ്ക്കുള്ള ലഞ്ചിനുള്ള ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയായിരുന്നു നമുക്ക് ബിരിയാണി മതി അവിടുത്തെ സ്പെഷ്യൽ ബിരിയാണിയല്ലേ നമുക്ക് ചിക്കൻ ബിരിയാണി തന്നെ മതി ചിക്കൻ ബിരിയാണി ഒരു പതിനഞ്ച് ചിക്കൻ ബിരിയാണി മതി ഉച്ചക്കത്തേക്ക് ഉച്ചക്കത്തേക്ക് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോളത്തേക്ക് എത്തിച്ചോളൂ കെട്ടോ പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒക്കെ ആകുമ്പോളത്തേക്ക് അതെ അതെ അതേ ലൊക്കേഷൻ തന്നെ നമുക്ക് ഹാ അറിയാമല്ലൊ അപ്പം അങ്ങോട്ടേക്കൊരു ഞാൻ വേണമെങ്കിൽ ഞാൻ ഒരു ലൊക്കേഷൻ ഇപ്പോൾ ഡെലിവറി ബോയ് ഒക്കെ മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ലൊക്കേഷൻ ഒന്നും കൂടെ വാട്സപ്പ് ചെയ്യാം ഓക്കെ അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങള് ഒന്ന് എത്തിച്ചേരണം കെട്ടോ നാളെ ഒരു പന്ത്രണ്ട് മണിയാവുമ്പം ഓക്കെ ഞാൻ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ചെയ്യാം കെട്ടോ